ഹലോ സാർ ഗുഡ് മോർണിംഗ് സാർ ഞാൻ പണ്ടൊരു ക്യാബ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു അപ്പം എനിക്കിപ്രാവശ്യം ഒരു യാത്ര പോവണം എനിക്കൊന്ന് ഗുരുവായൂർ വരെ പോവണം അപ്പം എനിക്ക് നിങ്ങളുടെ ക്യാബ് ഒന്ന് കിട്ടണം കിട്ടു ഞാൻ നേരത്തെ ഒരു ബുക്ക് ചെയ്തായിരുന്നു നിങ്ങളുടെ ക്യാബ് അന്ന് എനിക്ക് അഭിനവ് എന്നൊരു ഡ്രൈവറെ ആണ് കിട്ടിയത് എനിക്ക് ആ ഡ്രൈവറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ആ ഡ്രൈവറിനെ എനിക്ക് സെറ്റ് ചെയ്ത് തരാമോ എനിക്ക് ഭയ നിങ്ങള ക്യാബും നിങ്ങള സർവീസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി